ഹലോ എൻ്റെ പേര് ഷമീന എന്നാണ് ഞാൻ നിങ്ങളുടെ ഇതിൽ നിന്ന് സ്വിഗ്ഗി കസ്റ്റമർ കെയർ അല്ലെ ഇത് ഞാൻ നിങ്ങളെ ഇതിൽ നിന്നൊരു ഫുഡ് ഓർഡർ ചെയ്തിരുന്നു പക്ഷെ എനിക്കത് ടൈമിൽ എത്തിയിട്ടില്ല പിന്നെ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നത് ഫുഡ് പക്ഷെ പക്ഷെ എനിക്കത് ഇതു വരെ എത്തിയിട്ടില്ല ഇപ്പം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഡെലിവറി ചെയ്തേക്കുമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു പക്ഷെ എനിക്കത് ആ ഓർഡർ എനിക്കിതുവരെ എത്തിയിട്ടില്ല പിന്നെ മാത്രമല്ല എനിക്ക് ആ ടൈമിൽ എത്താത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഓർഡർ വേണ്ട ഇനി ക്യാൻസില് ചെയ്യാണ് അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു ഇതിന് പിന്നെ താൽപര്യം ഇല്ല നമ്മൾ ഇപ്പം ഒരു കാര്യം പറയുമ്പോൾ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് ആ ടൈമിൽ എത്തണമല്ലോ നമ്മൾ എന്തെങ്കിലും പെട്ടന്നൊരു ആവശ്യത്തിനായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇത് ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് അത് ആ ടൈമിന് എത്തിയെങ്കിലല്ലേ നിങ്ങളെ സർവീസ് നല്ലതാണെന്ന് പറയാൻ പറ്റുകയുള്ളു അപ്പം ഇത്രയ്ക്കും മോശമായിട്ടുള്ളൊരു രീതിയിൽ ഇപ്പം നിങ്ങളിപ്പോൾ കസ്റ്റമേഴ്സിനോട് പെരുമാറുമ്പോൾ അത് ആർക്കാണെങ്കിലും പറ്റൂല അപ്പം ഞാനിപ്പം ഇത് അത്രയും അർജെൻറ്റ് ഓർഡർ എന്താണ് തന്നതെന്നുവച്ചാൽ ഞാനിങ്ങനെ എപ്പോഴും ഇപ്പം ഓഡർ ചെയ്യുന്ന ആൾ അല്ല ഞാൻ ഫുഡ് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ ഇത് വീട്ടിൽ ഗസ്റ്റ് വന്നു അപ്പോൾ ഗസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടന്ന് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ നിങ്ങൾ ആ ടൈമില് എനക്ക് ഒര് മണിക്കൂർ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓർഡർ തന്നതും ക്യാഷ് ഞാൻ പേ ചെയ്തതൊക്കെ പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല എന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യ് എനിക്ക് ആ ഓർഡർ എന്തായാലും വേണ്ട എനിക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് തന്നാൽ മതി എനിക്ക് ഈ ഒരു വാട്സാപ്പിൽ നമ്പറിൽ തന്നെ ക്യാഷ് റീഫണ്ട് ചെയ്തുതന്നാൽ മതി ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി പിന്നെ നിങ്ങൾ ഇത്രയും ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ എന്നല്ല ഇനി വേറാർക്കെങ്കിലും ഇപ്പോൾ ഇനി നിങ്ങളിപ്പോൾ നിങ്ങൾ സർവിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നല്ലൊരു പാങ്ച്ചുവാലിറ്റി കീപ് ചെയ്തില്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് വേറെ ആളോടും ഇത് നിങ്ങളെ സർവീസിനെ പറ്റിയിട്ടും നിങ്ങള നിങ്ങളെ ഈ ഒരു സ്വിഗിനെ പറ്റിയിട്ടൊക്കെ പറയാൻ പറ്റുകയുള്ളൂ നല്ലതാണ് എന്നൊക്കെ പറയണം എന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങൾ ഒരു ഇർറെസ്പോൺസിബിൾ ആയി പെരുമാറുന്നത് ഒരു ഇതാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ എന്താണെങ്കിലും അത് വല്ലാത്തൊരു ഇതായി നിങ്ങളിപ്പോൾ നിങ്ങളതാ ഫുഡും വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഗസ്റ്റ് ഇതിന് വേണ്ടി ഇങ്ങനെ നിങ്ങളിതെത്തും എന്ന് കരുതിയത് കൊണ്ടല്ലേ ഇപ്പം നമ്മളിപ്പം ഓർഡർ ചെയ്തത് നിങ്ങൾ പിന്നെ എന്ത് എസ്ക്യൂസ് പറഞ്ഞാലും അത് അതിനൊരു പരിഹാരം അവൂലല്ലോ അപ്പം എന്താണെങ്കിലും ഇത് ഓർഡർ എനിക്ക് വേണ്ട ഓഡർ ക്യാൻസൽ ചെയ്തോളു എന്തായാലും എനിക്ക് എന്തായാലും ഇത് ഡെലിവറി ചെയ്തു എന്ന് മെസ്സേജ് വന്നാലും എനിക്കത് ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് ഇത് എത്തിയിട്ടില്ല ഓക്കേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം എനിക്ക് എന്തായാലും ഞാൻ അയച്ച ആ പേ ചെയ്ത പൈസ എനിക്ക് റീഫണ്ട് ചെയ്തു തരണം അപ്പോൾ ഈ നമ്പറിൽ തന്നെ എനിക്കത് റീഫണ്ട് ചെയ്ത് തന്നാൽ മതി ഓക്കേ